നമ്മുടെ പ്രദേശത്തെ ആശുപത്രികളിൽ വലിയ തിരക്കും അതുപോലെതന്നെ കാത്തിരുപ്പു സമയവും ആവിശ്യമാണ് ഇത്തരം അവസ്ഥകളിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്നുപറയുന്നത് പല അസുഖങ്ങൾ പല രോഗങ്ങൾ കൊണ്ട് വരുന്നവരായിരിക്കും പല ആൾക്കാര് അവരുടെ അടുത്തിന്ന് നമ്മക്കും ആ രോഗങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലാണ് പനിയായിട്ടും ചുമയായിട്ടും അതുപോലെ പലരോഗങ്ങൾക്കൊണ്ട് വരുന്നവരാണ് നമ്മുടെ ചുറ്റും ഉള്ളവര് നമ്മളിപ്പോൾ പോകുന്നത് വേറെവല്ല വയറുവേദന തലവേദന എന്ന അസുഖകൊണ്ടാണെങ്കിൽ തിരിച്ചുവരുന്നത് പനിയോ ജലദോഷമോ ചുമയോ ആയിട്ടാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ വളരെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് അതിന് വേണ്ട സാമൂഹിക ശുചിത്വവും അതുപോലെതന്നെ അടിസ്ഥാനപരമായ സാമൂഹിക അകലമൊക്കെ പാലിക്കേണ്ടത് വലിയ വലിയ ഒന്നുതന്നെയാണ് ആശുപത്രികൾ അതുപോലെ നീണ്ട ക്യൂവും വലിയത്തിരക്കും ഉള്ള ഒരു സമയം തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്